പ്രധാനമന്ത്രിയുടെ പോഷകപദ്ധതിയിൽ അധികവും ദാരിദ്ര്യരേഖയ്ക്കു താഴെയുള്ള ജനങ്ങൾക്കും അതുപോലെ വനവാസ്യ മേഖലയിലുള്ള ജനങ്ങൾക്കും ഗിരിജനങ്ങൾക്കും ഗർഭിണികളായ സ്ത്രീകൾക്കും പാവപ്പെട്ട ജനങ്ങൾക്കുമാണ് ജനങ്ങൾക്കുമായിട്ടാണ് പ്രധാനമന്ത്രി പോഷണ പദ്ധതി കൂടുതലായിട്ട് ഊന്നൽ കൊടുക്കുന്നത് നല്ല പദ്ധതിയാണ് നല്ല പ്രധാനമന്ത്രിയുടെ നല്ല പോഷണ പരിപാടിയാണ് അത് ഓരോ സംസ്ഥാനത്തും അതേ രീതിയിൽ നടപ്പാക്കുന്നുണ്ടോയെന്നുള്ള കാര്യത്തെക്കുറിച്ച് എനിക്ക് സംശയം ഉണ്ട് പാലായിട്ടും മുട്ടയായിട്ടും ധാന്യങ്ങളായിട്ടും അങ്ങനെ പലരീതിയിലും നല്ല രീതിയിൽ അതിനു കൊടുക്കുന്നുണ്ട് അത് കൃത്യമായി കിട്ടുന്നില്ല ചില സംസ്ഥാനങ്ങളിൽ എങ്കിൽ അത് ആ സംസ്ഥാനത്തിൻ്റെ കുഴപ്പമാണ് എന്നു മാത്രമേ എനിക്ക് പറയാൻ ഉള്ളു നല്ല പദ്ധതിയാണ് ഇനിയും അതു ജനങ്ങളിലേക്ക് അധികം സാധാരണക്കാരിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ അത്യാവശ്യക്കാർക്ക് അത് കിട്ടുക എന്നുള്ളത് വളരെ നല്ല കാര്യആണ്